ഹലോ ആ ആ തരാമല്ലോ അ എന്താ ഏതൊക്കെ ഐറ്റങ്ങളാണ് വേണ്ടത് അ ആ ആ പറഞ്ഞോ

കട്ടില് വേണം ഡൈനിങ് ടേബിള് വേണം അ സെറ്റ് സെറ്റ് അതിൻ്റെ കസേര ആ സെറ്റ് സെറ്റ് വേണം അങ്ങനെയള്ള ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അത് പിന്നെ ഉണ്ട് ഈട്ടിയുടെ ഉണ്ട് ആ ഉണ്ട് അതെ നല്ല ഈട്ടിയുടെ ഡബിൾ കോട്ടിന് വരുന്നത് പതിനഞ്ച് രൂപ വരുന്നുണ്ട് പതിനയ്യായിരം രൂപ ആ അതെ ആ ഞങ്ങൾ വില വില കൂടുതലാണ് അത് ഇച്ചിരി കുറച്ചിട്ടിരിക്കും നമ്മളൊരു ഓഫറ് ആ ഡിസ്കൗണ്ട് ആ അല്ല ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡിസ്കൗണ്ട്ൻന്റെ സമയം ആണ് കാരണം നമ്മുടെ ഒരു കട തുടങ്ങിയിട്ട് ഇപ്പം ഒരു മൂന്ന് വർഷമായ ഒരു സാഹചര്യമാണ് ആ ആയിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു ഓഫർ വെച്ചിരിക്കുന്ന വിലയാണ് ഇപ്പം ഈ പന്ത്രണ്ട് രൂപ ആ അപ്പം അത് ഡൈനിങ്ങ് ടേബിള് വരുമ്പോത്തനും അതിന് ഇപ്പം അതല്ല ഒരു കസേരകൾ വരുമ്പോൾ ഒരു കസേരയ്ക്ക് രണ്ടായിരം അപ്പം അതനുസരിച്ച് വരും അറ് കസേര ആണെങ്കിൽ പന്ത്രണ്ട് രൂപ വരും അങ്ങനെ വരും ഒരു കസേരയ്ക്ക് രണ്ടായിരം വരും ടേബിളിന് ഒരു അഞ്ച് രൂപ ആറ് രൂപ അറ് രൂപ വരും ആറ് രൂപ ആറ് ടേബിളിന് അറ് വരും ഒരു കസേരയ്ക്ക് രണ്ടായിരം രൂപ എന്നുള്ള റേഞ്ചില് വരും അപ്പം നമുക്ക് ആ ആ ഇല്ലല്ല അത് റെഡിമേഡ് ഷോക്കേസില്ല നമ്മൾ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും എന്നുള്ളൂ നമ്മൾ അളവെടുത്ത് അതിൻ്റെ സ്ഥലത്തിൻ്റെ നമ്മൾ സൈറ്റ് കണ്ടുവെച്ചിട്ട് സൈറ്റിൻ്റെ പിന്നെ സ്ഥലപ്പരിമിതിയനുസരിച്ച് അങ്ങനെ യോജിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് സെറ്റ് കൊടുക്കും സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മളെ ആൾക്കാരെ ആ അല്ലാതെ നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കാണ് വരുന്നത് സ്ക്വയർ ഫീറ്റ്

ആ അത് തന്നെ അതെന്നാ അറിയാമോ അത് നമ്മൾ കൂടുതൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾത്തേന് നമ്മൾ പുറത്തെ ഒരാളെക്കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത് ഏ അപ്പം അവരാണ് അതിൻ്റെ റേറ്റ് പറയുക ആൾക്കാർ ഒരാളിനെ ഞാനത് ശരിയാക്കി തരാൻ സാധിക്കും ആ മ് തീരുമാനം കൊണ്ട് ഒരു ഒരു ചേട്ടൻ ഒരു കാര്യം ചേട്ടൻ കടയിലേക്ക് വാ കടയിലേക്ക് വന്ന് സാധനം നമുക്ക് കാണുകയും അത് ചെയ്യുകയും ചെയ്യാം കാരണം നമ്മൾ ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നത് ആ ആ ആ അതുണ്ട് അത് കടയിലുണ്ട് ഇനിയിപ്പം കടയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സാധനങ്ങൾ കണ്ട് ആ ഉണ്ട് ഇല്ല അത് പിന്നെ ഇവിടെ നമുക്ക് മൂന്നുനാല് മോഡലുകളിൽ സാധനം ഉണ്ട് ഈ ട്ടി യിൽ അല്ലെങ്കിൽ വേറെ ഉണ്ട് നമുക്ക് വീട്ടിലാക്കി നമുക്ക് അതുപോലെ പണിതെടുക്കാൻ സാധിക്കും ഇഷ്ടപ്പെടുന്ന പല മോഡലുകളുണ്ട് നമുക്ക് അഞ്ച് കടകളുണ്ട് മ് അഞ്ച് കടകളുണ്ട് അഞ്ച് കടകളുണ്ട് നമുക്കൊരു ആ അല്ല സാധനം വീട്ടിൽ എത്തിക്കും ഓക്കെ ഓകെ ആ ഓക്കെ ശരി